കൃഷിയിലിപ്പം നവീനമായ പുതിയ കുറേ സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട തന്നെ കൃഷിയിലെ യന്ത്രവൽക്കരണത്തെക്കുറിച്ചാണ് നമുക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള കൃഷിക്കാർക്ക് ഇത് ഞാനൊരു ബേസിക്കലി ഒരു കൃഷി ഫാമിലിയെന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കറിച്ച് കൂടുതലറിയാൻ പറ്റും അതുപോലെ ഈ പോണിക്സ് അക്വാ പോണിക്സ് പോലുള്ള കൃഷി സമ്പ്രദായം കൃഷി സമ്പ്രദായങ്ങൾ ഇതൊക്കെ പിന്നെ ഇപ്പം ഈവൻ മരം കയറാനാണെങ്കിൽപ്പോലും നമുക്ക് മെഷീനുകളുണ്ട് മരം കയറാൻ മരം വെട്ടാൻ അതുപോലെ മരം മുറിക്കാൻ അങ്ങനെ പഴയ ഒരു പണ്ടത്തെ ഒരു പത്തിരുപത് വർഷത്തെ അപേക്ഷിച്ച് നമുക്ക് കൃഷിയിൽ നവീനമായ പല സാഹചര്യങ്ങളുള്ള ഉള്ളത് തൊഴിൽ തൊഴിൽപരമായി കൃഷിക്കാർക്ക് സഹായിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് അതിന് നമുക്ക് നവീനമായ വിഭവങ്ങൾ ഇപ്പം കൃഷിയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കൃഷി തുടങ്ങുന്നതിനുമുമ്പ് തന്നെ തൊട്ട് അതായത് വിത്ത് മുതൽ തന്നെ അത്യുൽപ്പാദന ശേഷിയുള്ള വിത്തുകൾ കിട്ടുന്നു അല്ലെങ്കിൽ അത്യുൽപ്പാദന ശേഷിയുള്ള വിത്തുകൾ ഉൽപാദിപ്പിക്കുന്നതിന് കൃഷിക്കാർക്ക് അറിവുകളും ഉണ്ട് ഈ അറിവുകൾ വെച്ച് പുതിയതരം അത്യുൽപ്പാദന ശേഷയുള്ളതും വിളവു കൂടിയതുമായ പുതിയ വിത്തിനങ്ങൾ കൃഷിഭവൻ വഴിയായി കിട്ടുന്നു അല്ലെങ്കിൽ കൃഷി സ്വതന്ത്ര സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഗവൺമെൻ്റിൻ്റെ അണ്ടറിലിപ്പം ആ വഴി ഇത് കൃഷിക്കാർക്ക് ലഭ്യമാണ് പിന്നെ അതുപോലെ ഈ മുമ്പ് പറഞ്ഞ യന്ത്ര സഹായത്തോടെയുള്ള കൃഷി രീതികൾക്കുവേണ്ടി അതിന് ഈ പത്തും പതിനഞ്ചും പേരടങ്ങുന്ന കൃഷി സംഘങ്ങൾ അതായത് ഇപ്പം എല്ലാവർക്കും ഇപ്പം എല്ലാ സാധനങ്ങളും മേടിച്ച് ഒരാൾക്കുതന്നെ ഉപയോഗിക്കാൻ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചേക്കറിലുള്ള ഒരാൾക്ക് എല്ലാം മരം വെട്ടുന്നത് മരം മുറിക്കുന്ന മരമുറിക്കുന്നത് പിന്നെ മരത്തിൽ കയറുന്നത് ഇപ്പം കുരുമുളക് മെതിക്കുന്നത് ഏലയ്ക്ക ഉണങ്ങുന്നത് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഒരാൾക്ക് തന്നെ എല്ലാവർക്കും കുറച്ച് കുറച്ച് കൃഷിയും കാണും ഈ എല്ലാ സ്ഥലത്തിലുള്ള കൃഷിയും കാണും എങ്കിലും ഇതെല്ലാം കൂടി ഒരാൾക്ക് മെയ്ൻ്റെയിൻ ചെയ്തു പോകാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെ ഇത് ഈ സാധനങ്ങൾ ചെറിയൊരു ആവശ്യത്തിനുവേണ്ടി മേടിക്കുക എന്നുള്ളതിൽ ബുദ്ധിമുട്ട് അത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് അതിനെല്ലാം പരിഹാരമായിട്ട് ഗവൺമെൻ്റ് സപ്പോട്ട് ചെയ്തിട്ട് ഇതിൽ ഇപ്പോൾ ഒരു പതിനഞ്ച് പേരുള്ള ഒരു സംഘത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള എല്ലാ മെഷീൻസും ഇപ്പം വുഡ് പിക്കർ മരം മുറിക്കുന്നത് മരം വെട്ടുന്നത് ഇങ്ങനെയുള്ള ഏലയ്ക്ക ഉണങ്ങുന്ന സ്റ്റോറിനുള്ള സംവിധാനം കുരുമുളക് മെതിക്കുന്ന മെഷീന് ഇതിപ്പം പുതിയ തരം ലാഡറുകൾ മീൻസ് പൊക്കമുള്ള മരത്തിൽ കയറുന്നതിനുവേണ്ടി കനം കുറഞ്ഞ ലാഡറുള്ള പണ്ടൊക്കെ നമ്മൾ ഏണി എന്നു പറയുന്നൊരു സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത് അതായത് വനത്തിൽ നിന്നും കിട്ടുന്ന ഈ മുള മൂത്ത മുളയുടെ പത്തും ഇരുപതും കമ്പുള്ള ഇതാണ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനൊക്കെ ശേഷം ഇപ്പം ഇരുമ്പും അലൂമിനിയത്തിലും വരുന്ന എണികൾ കനം കുറഞ്ഞ ഒരാൾക്ക് തന്നെ വളരെ നിഷ്പ്രയാസം ഉപയോഗിക്കാൻ പറ്റുന്ന ഏണികളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സംഘം വഴിയുള്ളത് ഇതൊക്കെ ആവശ്യാനുസരണം ഓരോത്തർ ഉപയോഗിച്ചശേഷം മറ്റൊരാൾക്ക് കൈമാറുന്നു അങ്ങനെ അങ്ങനങ്ങനെ പോകുന്നു അത് അങ്ങനെയുള്ള സംവിധാനം കൃഷി കൃഷി ഉപായങ്ങൾ നവീന കൃഷി ഉപായങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നെ സംബന്ധിച്ചിതിൻ്റെ ഉറവിടമെന്നു പറയുന്നത് ഞാൻ ഈ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല സംഭവങ്ങളെക്കുറിച്ച് പല ആളുകളിൽ നിന്നും പിന്നീട് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അന്വേഷിക്കുന്ന ഇപ്പം ഈ നെറ്റ് ഇൻ്റർനെറ്റ് വഴി നമുക്ക് കൃഷിയിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പം കാലാവസ്ഥ വ്യതിയാനം അല്ല ഇപ്പം ഇന്ന് മഴ പെയ്യുമോ അടുത്തെ ആഴ്ച്ച മഴ പെയ്യുമോ നമുക്കതനുസരിച്ച് നമ്മളുടെ കൃഷിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും മീൻസ് ഇപ്പം അടുത്ത ആഴ്ച്ച മഴ പെയ്യുമ്പോൾ ചെയ്യ മഴ പെയ്യുമ്പോൾ ചെയ്യേണ്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യുന്ന ദിവസം വരുന്നുണ്ട് ഇങ്ങനെ പല രീതിയിൽ ഇൻ്റർനെറ്റ് നമ്മുടെ കൃഷിയിൽ ഒരുപാട് തന്നെ സഹായിക്കുന്നുണ്ട്